ഇപ്പം ഒരു പശുക്കളെ സംരക്ഷിക്കണങ്കിൽ ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പണിയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പല പല രോഗങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കുക്കയാണുള്ളത് കുളമ്പ് രോഗമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പശുക്കൾക്ക് സർവ്വ സാധാരണമായിട്ട് ഇങ്ങനെ വല്ലാണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് കുളമ്പ് രോഗം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എന്താണ് പറയുക ഇപ്പോൾ സൊസൈറ്റിയിൽ ആണെങ്കിൽ തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഒരോ ക്യാമ്പെയിൻ ഒക്കെ വയ്ക്കുന്നുണ്ട് കുളമ്പുരോഗ കുത്തി വയ്പ്പ് എന്ന് പറഞ്ഞ് അവർ വന്നിട്ട് കുത്തിവെപ്പ് ഒക്കെ നടത്താറുണ്ട് പക്ഷേ അതിൽ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അത് കുത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിന് കുളമ്പുരോഗവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഏവിയൻ ഇൻഫ്ലുവൻസ എന്നു പറഞ്ഞ പുതിയ രോഗങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട് അപ്പോൾ മൃഗങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഈ അടുത്ത് ഒരു രോഗം വന്നിട്ടുണ്ടായിരുന്നു ചർമ്മമുഴ എന്ന് പറഞ്ഞിട്ടൊരു രോഗം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല പശുക്കളും പല കിടാവുകളൊക്കെ ചത്തുപോകുന്ന പല പല അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര പ്രശ്നം ആയിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ പശുവിന് തന്നെ വന്ന് അത് വൈറൽ ഫീവർ ആയത് കൊണ്ട് അപ്പുറത്തെ നമ്മുടെ കിടാവിന് വന്നു അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ മരുന്ന് കൊടുത്തിട്ടാണ് അത് കുറഞ്ഞത് ഇങ്ങനത്തെ പലതരം രോഗങ്ങൾ ഇപ്പം കിടാവുകൾക്കും പശുക്കൾക്കും എല്ലാത്തിനും വരുന്നുണ്ട്